നമ്മുടെ വിളകളെ കൂടുതൽ നശിപ്പിക്കുന്നത് പന്നി എലിയാണ് പന്നി എലി അത് കപ്പ ചേന ചേമ്പ് എന്നീ വിളകളിൽ അത് നമ്മൾ വിളയായി കഴിയുമ്പോഴ്ത്തേന് അത് ന അത് മൊത്തം നശിപ്പിക്കും അത് പറിച്ച് കളയുകയും ചെയ്യുന്നുണ്ട് കുറെ തീരെ കുറെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടാകും നമുക്ക് ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം ഒന്നുമില്ല എങ്കിലും പന്നി എലിയുടെ ശ് ശല്യമാണ് ഇപ്പോൾ കൂടുതൽ പിന്നെ അതുപോലെ പച്ചക്കറി ഒക്കെ നട്ടുകഴിഞ്ഞാൽ കോഴി കോഴിവന്ന് അതെല്ലാം ചികഞ്ഞ് കളയുകയും ഇതിൻ്റെ ഇല കൊത്തി തിന്നുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് അത് ആ കിളുത്ത് വരുമ്പഴ്ത്തേന് അതങ്ങനെ തിന്നുകഴിയുമ്പോൾ ആ വിളകൾ നശിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊരു ഇതൂടെ പിന്നെ അതുപോലെ തന്നെ മുളക് മുളക് ആണെങ്കിൽ കൂടുതലയിട്ട് ഉണ്ടാകുന്നതാണേ ഈ കോഴി വന്ന് ഇത് തിന്നുകയും അത് പറിച്ച് ഇത് കോഴി ചികഞ്ഞ് അത് പറിച്ച് അത് ദൂരെ കളയുകയും ചെയ്യുന്നു പിന്നെ കൂടുതലായിട്ടും പന്നി എലി ശല്യമാണ് അതായത് കപ്പയൊക്കെ ഏക്കർ കണക്കിന് പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരുടെ കപ്പയെല്ലാം നശിപ്പിക്കുന്നത് ഈ പന്നിയെലിയാണേ അപ്പോൾ അതിന് അവർ പ ഇ എലി എലിയുടെ എലിക്കെണി വെക്കാറുണ്ട് അങ്ങനെ എലിയെ പിടിക്കാറുണ്ട്